എൻ്റെ പ്രദേശത്ത് ഒരു രണ്ടു മൂന്നാല് ഹോസ്പിറ്റലുകളുണ്ട് പ്രൈവറ്റ് ആണെങ്കിലും അതുപോലെതന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാണെങ്കിലും രണ്ട് മൂന്നാലെണ്ണം ഉണ്ട് മൂന്നാലെണ്ണം നാല് അഞ്ചെണ്ണം ഒക്കെയുണ്ട് ഇവിടെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഒരു അഞ്ച് കിലോ മീറ്റർ പോയെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയാണ് പക്ഷേ പോകാനും സ്കൂട്ടിയിൽ തന്നെ പോകണം നടന്നു പോകാൻ ഒന്നും പറ്റില്ല പിന്നെ ഗവൺമെൻ്റ് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാൽ വടക്കഞ്ചേരി പോകണം അത് രണ്ട് ബസ് ഒക്കെ കയറിയിട്ട് വേണം പോകാൻ ബസ് ചിലവ് ചിലവിൻ്റെ പൈസ അതുപോലെതന്നെ അവിടെ പോയാലും നമുക്ക് ഫീ ഇപ്പോൾ ടോക്കൺ എടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കണം അവിടെ മരുന്നെന്തെങ്കിലും ഇല്ലയെന്ന് പറഞ്ഞാൽ പുറത്ത് എഴുതിത്തരും ആണ് പറഞ്ഞാൽ നമ്മളതിനും പൈസ കൊടുക്കണം ചിലവൊക്കെ കൂടുതൽ തന്നെയാണ് ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ബി പി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും അവിടെ അവിടെ ടൈമിനൊക്കെ ബി പി ടെസ്റ്റ് ചെയ്യുകയുള്ളൂ ടൈമിന് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാഴ്ചയിൽ ബി പി ടെസ്റ്റ് ചെയ്യുകയുള്ളൂ അപ്പം അതിനുവേണ്ടി നമ്മൾ പുറത്തുപോയിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടിവരും അപ്പോൾ അതിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലവൊക്കെ കൂടുതൽ തന്നെയാണ് പിന്നെ അവരുടെ ടൈം പോലെ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ അതുപോലെ അവർ നമ്മുടെ സിറ്റുവേഷൻ അവർക്ക് മനസ്സിലാകണമെന്നില്ലല്ലോ അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ആരോഗ്യം ഹെൽത്ത് നന്നായിട്ട് സൂക്ഷിക്കണം എങ്കിൽ നമ്മൾ അവർ പറയുന്നതു പോലെ കേൾക്കേണ്ടിവരും ഇപ്പോൾ പുറത്തുപോയി ചിലവുകളൊക്കെ കൂടുതൽ തന്നെയാണ് പുറത്തു നിന്നെന്തെങ്കിലും മരുന്നു വാങ്ങണമെങ്കിലും സ്കാൻ ചെയ്യാനാണെങ്കിലും എല്ലാം പുറത്തു നിന്ന് എഴുതുന്നതു കൊണ്ട് ഭയങ്കര ചിലവുകൾ തന്നെയാണ്